എൻ്റെ കുടുംബത്തിൽ കുടുംബക്കാരുമായി സമയം ചിലവിടാനും നമ്മുടെ ചിന്തകൾ അവരുമായി പങ്കുവെക്കാനും അവരുടെ ചിന്ത എന്നോട് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവരുമായി പങ്കുവെക്കാനും ഞങ്ങളൊരുമിച്ച് അടുക്കളയിൽ ഒരുമിച്ച് നിന്ന് ഭക്ഷണം പാകം ചെയ്യുകയും അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും ചെയ്യും പച്ചക്കറി അറിയുമ്പോളോ അല്ലെങ്കിൽ രാവിലെത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോളോ അവരവർക്ക് പറയാനുള്ള വിശേഷങ്ങൾ ഓരോന്നായി അവരു നമ്മളോട് പറയുകയും നമ്മുടെ വിശേഷങ്ങൾ അവരുമായി പങ്കിടുകയും ചെയ്യും എല്ലാവരും കൂട്ടത്തോടെ ഇരുന്ന് ഒരു അടുപ്പിൻ്റെ ചുവട്ടിൽ എല്ലാവരും കൂട്ടത്തോടെ ഇരുന്ന് അവരവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഒരു കുടുംബമെന്ന നിലയിൽ ഇന്ന് എന്താണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ ഇന്നു എപ്പോഴാണ് എഴുന്നേറ്റത് എന്തൊക്കെയാണ് അവരുടെ ഓരോ വീട്ടിലെ വിശേഷങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് മനസിലാക്കി എന്ന് പോകണം എന്ന് വരുന്നു എന്ത് വർക്ക് ചെയ്യുന്നു എന്തൊക്കെയാണ് നമുക്കിന്നു ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണ് പോവേണ്ടത് നമ്മുടെ വീട്ടിൽ ഇന്ന് ഉപ്പുണ്ടോ കർപ്പൂരമുണ്ടോ അതായത് ഒരു വീട്ടിലെ വസ്തുക്കൾ എല്ലാം തന്നെ അവരുമായി ഷെയറെയ്യുന്നു ഒരു ആ ഒരു ഒരു പച്ചക്കറിത്തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ പലവിധ പച്ചക്കറികൾ കാണുന്നതുപോലെ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ നമ്മളുമായി എല്ലാവരുമായി ചേർന്ന് നമ്മുടെ കുടുംബക്കാരുമായി ചേർന്ന് സമയം പങ്കിടുകയും അവരുമായി വിശേഷങ്ങൾ പങ്കുവെക്കും അവരു പറയുന്ന കാര്യങ്ങൾ നമ്മളത് മനസിലാക്കുകയും നമ്മളവരോട് ഓരോ കാര്യങ്ങൾ മനസിലാക്കികൊടുക്കുകയും അവരു പറയുന്ന തെറ്റുകുറ്റങ്ങൾ നമ്മളത് മനസിലാക്കി അതിൻ്റെതായ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുന്ന നമുക്ക് ശ്രമിക്കാൻ കഴിയുന്നുണ്ട്